ഞങ്ങളുടെ പ്രദേശത്തേ ആരോഗ്യ പിന്നേ സേവനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നേ വളരേ മോശമാണ് നമുക്കിവിടേ അതായത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ ഒക്കേ ഉണ്ട് പക്ഷേ അവിടുത്തേ പിന്നേ അതായത് അവിടുത്തെ പിന്നേ ചികിത്സയൊക്കേ വളരേ മോശമാണ് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മെഡിക്കൽ കോളേജ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇപ്പോൾ അസുഖം കുറച്ച് കൂടുതലൊക്കെയാണെങ്കിൽ അവർ വേഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്യുക അപ്പം പിന്നേ ഇവിടേ മെഡിക്കൽ കോളേജ് എന്നു പറഞ്ഞ സംഭവം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ലല്ലോ പിന്നേ അത് അതൊക്കേ വച്ച് നോക്കുമ്പോൾ നമുക്ക് പട്ടണങ്ങളിലെ പിന്നേ ഹോസ്പിറ്റൽ സൗകര്യം തന്നെയാണ് നല്ലത് എല്ലാ അസുഖത്തിനും നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ തന്നേ പോയാൽ മതി ഇവിടുത്തെ പോലെ പല ഹോസ്പിറ്റലുകളിൽ കയറി നടന്ന് കയറി ഇറങ്ങി കളിക്കേണ്ട ആവശ്യമില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടേ ഇവിടുന്നു വെച്ചിട്ടുണ്ടേ അതായത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലാണ് സ്കാനിങ്ങിന് പൈസ കൊടുക്കണം അതേപോലേ വലിയ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കാൻ പറയും വലിയ പൈസേൻറ്റെ മരുന്നാണെങ്കിൽ ചെറിയ പൈസേൻ്റെ മരുന്നാണെങ്കിൽ മാത്രമേ ഇവർ തരികയുള്ളൂ അപ്പോൾ ഇവിടുത്തേ ആരോഗ്യ മേഖല വളരേ മോശമാണ് പട്ടണത്തെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ